എൻ്റെ പ്രദേശത്തെ ആളുകൾ ശക്തമായി വിശ്വസിക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ എന്നു പറയുമ്പോൾ അത് എന്നു പറയുന്നത് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാണാതെയൊക്കെ ആയാൽ അവിടെ ദൂരെയുള്ള ഒരു പിന്നെ ഒരു കവടി നിരത്തി നോക്കിയാലത് പിന്നെ കിട്ടും അതെവിടെയാണ് ഉള്ളതെന്ന് അവരു പറഞ്ഞുതരും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെയുണ്ട് അതുപോലെ നമ്മൾക്കെന്തെങ്കിലുമൊരു വിജയം നേടണമെങ്കിൽ ദൂരെ അവിടെപ്പോയി ആയിരം രൂപ അവിടെ കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അമ്പലം പോയി തൊഴുത് പിന്നവിടെ പൂജ ചെയ്താൽ അത് നടക്കും എന്നു പറയുന്നതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇതിനോടൊന്നും ഞാനും യോജിക്കുന്നില്ല ഇപ്പം നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോയിട്ടവരോട് ചോദിച്ച് അവർ ഇതാ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുമെന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതുകൊണ്ടുതന്നെ അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇത് എല്ലാ എൻ്റെ പ്രദേശത്തുള്ള ഒരാളല്ല എല്ലാവരും ഇതിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്